ഹൈക്ക് ചെയ്യാൻ എനിക്കിഷ്ടമുള്ള ഭൂപ്രദേശം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് മൽ മലകളാകട്ടെ വനങ്ങളാകട്ടെ ബീച്ചുകളാകട്ടെ മഞ്ഞു മൂടിയ പർവ്വതങ്ങളാകട്ടെ ഇടതൂർന്ന വനങ്ങളാകട്ടെ പർവ്വതങ്ങളിൽ സൂര്യാസ്തമയങ്ങളാകട്ടെ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം മലകളിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ മലകളിൽ മല കയറുന്ന സമയത്ത് താഴെയുള്ള തണുപ്പോ ചുടോ ഒന്നും ആയിരിക്കില്ല മല കയറി മുകളിലേക്കു പോകുന്നത് മുകളിലേക്ക് പോകും തോറും നമ്മുടെ ഊഷ്മാവ് ശരീര ഊഷ്മാവുമാകട്ടെ അന്തരീക്ഷ ഊഷ്മാവ് കുറയുകയും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയും വല്ലാത്തൊരു അനുഭൂതി തന്നെയാണത് അപ്പോൾ മല കയറുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചുറ്റും ഒരുപാട് എന്താ വനങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന മലകളുണ്ട് അപ്പോൾ ആ വനങ്ങളിലൂടെയുള്ള യാത്ര മൃഗങ്ങളുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളുണ്ടായിരിക്കും ക്രൂര മൃഗങ്ങളുണ്ടായിരിക്കും ഒരു ചെറിയൊരു ഭയവും എന്നാൽ കുറച്ചൊന്ന് റിസ്കി എലമെൻസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര രസമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വനങ്ങളുടെയൊക്കെ ഭംഗി ആ ചെറിയ കാട്ടു ചോലരുവി ഇങ്ങനെ ഒഴുകി വരുന്നതും ആ തെളിനീര് എടുത്ത് കുടിക്കുക അതിൽ കുളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കൊരു പ്രത്യേക ഒരനുഭൂതിയാണ് മലകളിൽ നിന്നും വരുന്ന മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമൊക്കെ കാണാൻ എന്തു രസമാണ് ഇപ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ അനുഭവിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബീച്ചുകളെ കുറിച്ചു പറയാണെങ്കിൽ ബീച്ചുകളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് അവിടെ ചെന്ന് ഇരുന്നാൽ മതി എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ആ കടലിൽ നോക്കിയിരിക്കുമ്പോൾ പൂവാത്തതായിട്ട് ആ ഒരു സങ്കടങ്ങളില്ല ആ കാറ്റും ആ ആ എന്താ ഉപ്പ് വെള്ളത്തിൻ്റെ ചെറിയൊരു ഈർപ്പം ചെറിയൊരു നനവുള്ള നനുത്ത കാറ്റ് വന്ന് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങ് സമയം പോകുന്നതു പോലും അറിയാതെ അങ്ങ് ഇഴുകി ചേരാണ് പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ കടൽത്തീരങ്ങളിൽ പോകുമ്പോൾ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതിയിട്ട് അത് തിര വന്ന് മായിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇരിക്കാറുണ്ട് അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവിടെ ഈ കപ്പലണ്ടി വിൽക്കാൻ വരുന്നവരുണ്ടായിരിക്കും ഐസ് ക്രീം വിൽക്കാൻ വരുന്നവരുണ്ടായിരിക്കും അവരിൽ നിന്നൊക്കെ ഒരൈസ്ക്രീം അല്ലെങ്കിൽ ഒരു കപ്പലണ്ടിയൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് ഭയങ്കര നമ്മുടെ മൈൻ്റിനെ റിഫ്രേഷ് ചെയ്യും ഫാമിലി ആയിട്ട് സന്തോഷിക്കാൻ ഒത്തുകൂടി സന്തോഷിക്കാനൊക്കെ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ബീച്ചെന്നു പറയുന്നത് ബീച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ കാണാൻ പറ്റും ബോട്ടുകൾ പോകുന്നതു കാണാൻ പറ്റും മീൻ പിടിക്കാനുള്ള മീൻപിടിത്തക്കാരെ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ ഈ ശംഖ് ശംഖിനെ കുറിച്ച് പറയാണെങ്കിൽ ബീച്ചിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ശംഖ് പറക്കാനൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ നടക്കാറുണ്ട് ശംഖ് ചിടപ്പി കക്കാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറക്കാൻ വേണ്ടി നടക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ബീച്ചിൽ പോകുമ്പോൾ ഏറ്റവും ഫേവററ്റായിട്ട് കാണുന്നത് പാനി പൂരി ആണ് കാരണം ബീച്ചിൻറ്റെ സൈഡിൽ പാനിപൂരി വിൽക്കുന്ന ഒരുപാട് ഹിന്ദി ഹിന്ദിക്കാരുണ്ടായിരിക്കും ഇപ്പോൾ ഏതൊരു സംസ്ഥാനത്തായാലും ബീച്ചെന്നും സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും പിന്നെ മഞ്ഞിപ്പൂടി മൂടിയ മലനിരകളെ പറ്റി പറയാണെങ്കിൽ മഞ്ഞിഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാകില്ല മഞ്ഞിൽ കളിക്കാത്തവരായി കളിക്കാൻ ആഗ്രഹമുള്ള ത്തവരായി ആരും ഉണ്ടാകില്ല മണാലി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്നതു തന്നെ മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ആ അങ്ങനെയുള്ളൊരു മലനിര പർവ്വതത്തിലേക്കൊക്കെ കയറാനായിട്ട് ആഗ്രഹമുള്ള വരായിരിക്കും മിക്കുള്ളവർ ആ മഞ്ഞിൻ്റെ ഒരു തണുപ്പ് അനുഭവിക്കാൻ ആ മഞ്ഞിൽ ഐസ് കേസുണ്ടാക്കാൻ ഐസ് മാനിനെ ഉണ്ടാക്കി കളിക്കാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയുണ്ടായിരിക്കും പർവ്വതങ്ങളിലേക്ക് മുകളിലേക്കു കയറുന്തോറും നമുക്ക് ശ്വസിക്കാനുള്ള ഡിഫിക്കൾറ്റീസ് ഒരുപാടുണ്ടായിരിക്കും പക്ഷേ എന്നാലും ആ യാത്രയെ നമുക്ക് വളരെയധികം ആസ്വദിച്ച് പോകാൻ പറ്റും അവിടെ ആകർഷിക്കുന്ന ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ സ്ഥലവും ഏതു സ്ഥലത്തേക്കു പോയാലും അവിടെയുള്ള ചുറ്റുമുള്ള കാഴ്ചകളെന്നെ വളരെ ആകർഷിക്കാറുണ്ട് എല്ലാ സ്ഥലവും ഏതൊരു സ്ഥലം ആയിക്കോട്ടെ അവിടെ അതിൻറ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അതു മനസ്സിലാക്കി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും